മൂന്ന് പതിനൊന്ന് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ട് ആറ് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എട്ട് നാല് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ് ഒൻപത് പത്ത് രണ്ടായിരത്തി ഒന്ന്